പഴയ തലമുറയെന്നു പറഞ്ഞാൽ അച്ഛനും അമ്മയും പറയുന്നത് അതേപടി അനുസരിക്കുമായിരുന്നു ഇപ്പോഴത്തെ പുതിയ തലമുറ അച്ഛനും അമ്മയും പറയുന്നതിന് നേരെ ഓപ്പോസിറ്റ് മാത്രമേ കാണിക്കത്തുള്ളൂ ഇങ്ങോട്ടു വരാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോകും അതു തന്നെയല്ല കൃഷിയുടെ കാര്യം ഇതുതന്നെ പറമ്പിൽ കുഴിച്ച് വയ്ക്കുന്ന കാര്യം എന്നതാന്ന് പോലും അറിയാൻ മേല കിളക്കാൻ അറിയാൻ മേല ഒരു തൂമ്പ എടുക്കാൻ അറിയാൻ മേല പുതിയ തലമുറയ്ക്ക് അങ്ങനെ ഉള്ളൊരു കാര്യങ്ങൾ ഒരു കാര്യങ്ങളും അറിയത്തില്ല അതുങ്ങക്ക് അവർക്ക് ഫോണിൽ കളിക്കണം ഏതു സമയവും ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കാം അതേസമയം പണ്ടങ്ങനെ അല്ലായിരുന്നു നമ്മുടെ അച്ഛനും അമ്മയും പറമ്പിൽ പണിക്കിറങ്ങി എന്തെങ്കിലും ചെയ്തോ ചെയ്യാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ കൂടെ മക്കളും കൂടി ഞാനൊക്കെ അങ്ങനെ ആയിരുന്നു അപ്പോൾ കൂടെ ഇറങ്ങി ഓരോന്ന് പറമ്പിൽ ഓരോന്നു ചെയ്യുകയും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒക്കെ ചെയ്യുകയും അവരെ സഹായിക്കുമായിരുന്നു ഇപ്പോഴത്തെ തലമുറ അങ്ങനെയല്ല അവർ ഇരുപത്തിനാല് മണിക്കൂറും ഫോണിൽ നോക്കി എന്നാ ഒക്കെ ഫോണിനകത്തുണ്ടെന്നും ആ എന്നാ ഒക്കെ ചെയ്യാമെന്നുള്ളതും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ തലമുറയുടെ ഒരു പുതിയ അനുഭവം അങ്ങനെയാണ് പിന്നെ പഴയ തലമുറയിലെ ഉള്ള ആൾക്കാർ പറയുന്നത് ഇപ്പോഴത്തെ തലമുറയിലെ അംഗങ്ങൾ കുട്ടികൾക്ക് അതു പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ടാണ്